ആ പറയണം ആരാണ്

ആ ഇല്ല ആ ആ ഓക്കെ

ആ നോക്കുന്നുണ്ട് ആ മോന് വേണ്ടീട്ടാണ് നോക്കുന്നത് ഏത് ആ ഏത് കളറായിരിക്കും ബെറ്ററൊന്ന് പറയാമോ നോർമൽ യൂസിന് വേണ്ടീട്ട്

ആ ആ അത് ആ ആ ഇനി എന്തേലും വരുവാണെങ്കിൽ

ആ അത് ശ്രമിക്കാം ഈ ചോള ഫിനാൻസെന്ന് പറഞ്ഞാൽ ആ ആ ആ ഇനി ഫുള്ള് അതെ ഈ ഫുൾ ഈ ഫുൾ എമൗണ്ടടയ്ക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടോ ഇത് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ തന്നെ അഡ്വാൻസ് ഓക്കെ ആണ് ആ ആ ആ അത് അത് നോക്കാം അതടയ്ക്കാം ഓക്കെ ഈ ഫ്രീ സർവീസ് എത്ര വരും ആ ഓക്കെ

ആ ആ മൈലേജ് ഓ ഓ മൈലേജെത്ര കിട്ടും കിലോമീറ്റർ ഇരുപത്തഞ്ച് ഓക്കെ പിന്നെ എൻ്റെ മോനും ആയിട്ട് ഞാൻ പിന്നെ വരാം ആ ആ ഓക്കെ ഓക്കെ ആ അതെ ഓക്കെ ഇത് അല്ലേ ആ ആ എന്നാൽ ശരി ആ താങ്ക് യൂ ഓക്കെ